കോഴിക്കോട് ജില്ലയിലെ ആളുകൾക്ക് ഒരു പണിയൊന്നുമല്ല ഒരുപാടു പണികളുണ്ട് പെയിൻറ്റിങ് ബാർബർ ഷോപ്പ് ഗൾഫുകാരുണ്ട് പിന്നെ പെയിൻറ്റിഗ്കാരുണ്ട് ബില്ഡിങ്സ് കെട്ടുന്നവരുണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് നേഴ്സമാരാണെങ്കിലും നേഴ്സ് ആയിട്ടോ മെയിൻറ്റനൻസ് ആയിട്ടോ എലെക്ട്രിഷ്യമാരായിട്ടോ അങ്ങനെ ഒരുപാടു പേർ ഓ ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ലാബ് ടെക്നിഷ്യൻ ആയിട്ടും കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആയിട്ടും ടെലി കോളറായിട്ടും അങ്ങനെ ഒരുപാടു മേഖലയിൽ ഇവിടെയുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അത് കോഴിക്കോട് ജില്ലയിലെ ആളുകൾ എന്നു പറഞ്ഞിക്കാണ്ട് അവർ മാത്രമായിട്ട് ഒന്നിനും പ്രാധാന്യം കൊടുക്കുന്നൊന്നും ഇല്ല ഫുഡ് ഉണ്ടാക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാടു കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അതൊക്കെയാണ് കോഴിക്കോട് ജില്ലയിലെ ആളുകൾ ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ആളുകൾ ചെയ്യുന്നത് തന്നെയാണ് എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും ചെയ്യുന്നതും അതിന് അങ്ങനെ ഒരു പ്രത്യേക കൂടുതലും ഗൾഫ് ഗൾഫിൽ അന്യ വിദേശത്ത് ഒക്കെ ഉള്ളവരാണ് കൂടുതലായിട്ടും ഉള്ളത്